ഹലോ വിങ്ങ്സ് ഹോസ്പിറ്റലിലെ അശ്വതി ഡോക്ടറല്ലേ ആ ഡോക്ടർ ഞാൻ വിളിച്ചതെന്താണെന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടു ദിവസം മുൻപ് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായായിരുന്നു അപ്പോൾ ഞാൻ തല ഇടിച്ചായിരുന്നു വീണത് അപ്പോൾ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു കൂടെ അപ്പോൾ വേഗം എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു അപ്പോൾ അവിടെനിന്ന് ഞങ്ങൾ ബത്തേരിയാണ് കാണിച്ചത് അപ്പോൾ അവിടെനിന്ന് ജസ്റ്റ് ഒരു രണ്ട് പെയിൻ കില്ലറാണ് തന്നത് ഞാൻ അത് രണ്ടുദിവസം കഴിച്ചുനോക്കി പക്ഷെ എനിക്ക് പെയിൻ കുറയുന്നില്ല ഭയങ്കര പെയിനാണ് ആ തലയിൽ നെറ്റീൻ്റെ അവിടെയായിട്ടാണ് ഇടിച്ചത് പുരികത്തിന് കുറച്ചു മേലെയായിട്ട് അപ്പോൾ ഭയങ്കര പെയിനാണ് ഇപ്പോൾ എന്താണെന്നറിയില്ല തലയ്ക്ക് ഫുള്ളൊരു പെയിൻ വരികയാണ് അപ്പോൾ വീട്ടിൽ ഹസ്ബൻഡും അമ്മയും ഒക്കെ പറഞ്ഞു ജസ്റ്റ് ഒന്നു സ്കാൻ ചെയ്തുനോക്കി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ എന്നു പറഞ്ഞു അപ്പോൾ ഞാൻ സ്കാൻ ചെയ്യാമെന്നോർത്തു ഡോക്ടറെ വിളിച്ചു നോക്കിയതാണ് ആ ഡോക്ടർ ആ എന്നായിരിക്കും ഡോക്ടർ ഉണ്ടാവുക നാളെ വന്നാൽ ഡോക്ടർ ഉണ്ടാകുമോ ആ അപ്പോൾ തിങ്കളാഴ്ച ഞാൻ വരാം ഡയറക്റ്റ് ആയിട്ട് വന്നാൽമതിയോ അതോ ഇനി ഞാൻ ബുക്ക് ചെയ്തിട്ട് വരണോ മാഡം ആ ഡോക്ടർ എനിക്ക് ആ ഓക്കെ ഞാൻ എന്നാൽ ബുക്ക് ചെയ്തിട്ട് വരാം എനിക്ക് ചെറിയൊരു വർക്കിന് പോകാനുണ്ടായിരുന്നു അപ്പോൾ ഇതെത്ര ടൈം കുറേ ടൈമൊക്കെ വേണ്ടിവരുവോ അവിടെ സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്തുകഴിഞ്ഞാൽ റിപ്പോർട്ട് മേടിക്കാൻ ഞാൻ തന്നെ വേണമെന്നില്ലല്ലോ വേറെ ആരെങ്കിലും ആയാൽ മതിയോ എനിക്ക് വർക്ക് ചെയ്യാനുള്ളതായിരുന്നു ഓക്കെ ഡോക്ടറേ അപ്പോൾ മൺഡേ വന്നാൽ മതിയല്ലേ നമുക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഏതു ടൈമിൽ വേണമെങ്കിലും വരാമോ അതോ ബുക്ക് ചെയ്തതിൽ ഒരു ടൈമുണ്ട് ഇന്ന ടൈമിൽ വരണമെന്നോ അങ്ങനെയെന്തെങ്കിലും ആ അപ്പോൾ എനിക്കൊരു രാവിലെയൊരു പത്തുമണിക്കൊക്കെയേ വരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽപ്പിന്നെ ഒരു പന്ത്രണ്ടുമണി കഴിയാണ്ട് എനിക്ക് വരാൻ പറ്റില്ല വർക്കിന് കയറിക്കഴിഞ്ഞാൽ അപ്പോൾ ഞാനൊരു പന്ത്രണ്ടുമണിയാകുമ്പോൾ വന്നിട്ട് ബുക്ക് ചെയ്യുമ്പോൾ ടൈം അതിലുണ്ടാവുമോ ആ ഓക്കെ ഓക്കെ എന്നാൽ ഒമ്പതു മണിയൊക്കെയാകുമ്പോഴത്തേക്ക് ഞാൻ വന്നേക്കാം മാഡം എനിക്ക് കുറച്ചു തിരക്കുണ്ട് അപ്പോൾ എനിക്ക് ചെയ്തിട്ട് വേഗം പോകണം

ആ ഓക്കെ മാഡം അപ്പോൾ തിങ്കളാഴ്ച വരാമല്ലേ ആ ഓക്കെ മാഡം എന്നാൽ ശരി അതറിയുവാൻവേണ്ടി വിളിച്ചതായിരുന്നു മാഡം അവിടെനിന്ന് ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഒരു രണ്ട് പെയിൻ കില്ലെർ തന്നിരുന്നു അപ്പോൾ അത് കഴിച്ചുനോക്കാനാണ് അവർ പറഞ്ഞത് എനിക്ക് തലയ്ക്കു നല്ല വേദനയുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അവർ പെയിൻ കില്ലെർ കഴിച്ചുനോക്കാനാണ് പറഞ്ഞത് അപ്പോൾ അതു രണ്ടുദിവസം ഞാൻ കഴിച്ചുനോക്കി പക്ഷെ എനിക്ക് കുറവില്ല അപ്പോൾ ഞാൻ ആ മെഡിസിൻ നിർത്തി പിന്നെ ഞാൻ കഴിച്ചില്ല ഓക്കെ മാഡം ആ എന്നാൽ ശരി